ആഹാരങ്ങൾ ഉണ്ടാക്കാനും അത് അവർക്ക് വിളമ്പി കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭക്ഷണം ഉത്തരേന്ത്യൻ ഭക്ഷണം ഭക്ഷണങ്ങളിൽ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനാന്ന് ഭയങ്കര താൽപ്പര്യം ചപ്പാത്തിയിൽ പ്രത്യേകിച്ചും ഫുൽക്ക ഫുൽക്ക ഉ ണ്ടാക്കയാണെങ്കിൽ എൻ്റെ മക്കൾ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും ഫുൽക്കേം അതിന് പറ്റിയ എന്തെങ്കിലും കുറുമായോ അങ്ങനെ ഉണ്ടാക്കയാണെങ്കിൽ മക്കൾക്കും ഭർത്താവിനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനധികം രാവിലത്തെ ഭക്ഷണങ്ങളിൽ ലീവുള്ള ദിവസങ്ങളിലൊക്കെ പിന്നെ ഫുൽക്കേം അവർക്ക് മുട്ടക്കറിയോ പിന്നെ സോയാബീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വിരുന്നുകാർ വരികയാണെങ്കിൽ കോഴിക്കറി നമ്മുടെ ചെറുവത്തൂര് സ്റ്റൈലിൽ ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്ക് ഇഷ്ടം ചെറുവത്തൂര് സ്റ്റൈലിൽ പിന്നെ നല്ല കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് ഒരു വറവ് ഉണ്ടാക്കാറുണ്ട് നല്ല അടിപൊളിയാണ് അത് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ എൻ്റെ വീട്ടിലെല്ലാരിക്കും ഇഷ്ടം അത്പോലെന്നെ വരുന്നാൾക്കാരും പിന്നെ നല്ല അഭിപ്രായമാണ് പറയാറുള്ളത് ഈ ചിക്കൻ കറി വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം വിരുന്ന് കാർ വരുമ്പഴത്തെക്ക് ഞാൻ ഒരു തിരഞ്ഞെടുക്കുന്നൊരു കറിയാണ് കോഴിക്കറി അതുപോലെ തന്നെ അവിയൽ ഉണ്ടാക്കാനും ഇഷ്ടം തന്നെയാണ് അവിയൽ എല്ലാം പച്ചക്കറികൾ മുറിച്ചിട്ട് അതിൽ പച്ചമുളകും കീറീട്ട് വേവിച്ച് പിന്നെ തേങ്ങയും ജീരകവും ഒന്ന് ഒതുക്കി ഇട്ട് അതിൽ മോരൊഴിച്ച് ഉണ്ടാക്കുന്നൊരു കറിയാണ് നമ്മുടെ കേരളീയ കറിയാണ് അത് ഉണ്ടാക്കിയ തന്നെ വളരെ രസത്തോടെ എല്ലാവരും കഴിക്കും അവിയൽ എല്ലാർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് പിന്നെ